സാങ്കേതികവിദ്യയെക്കുറിച്ചും കമ്പ്യൂട്ടറുകളെക്കുറിച്ചും പഠിക്കാനായിട്ട് വിവിധതരത്തിലുള്ള കോഴ്സുകളിന്ന് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കാണുന്നുണ്ട് കുട്ടികള് എല് കെ ജി മുതലേ കമ്പ്യൂട്ടര് പഠിക്കുകയും അതിന്റെ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഐ ടി മേഖലകള് ലോകം കയ്യടക്കിയിരിക്കുന്ന ഈ കാലത്ത് കമ്പ്യൂട്ടര് പഠിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് കുട്ടികള്ക്ക് നന്നായിട്ട് ബോധ്യമുള്ളവരാണ് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ഇപ്പോള് ക്ലാസുകളെടുക്കുന്നതുപോലും ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ്